ഞാൻ ഓൺലൈൻ ആയിട്ടൊരു വാഷിംഗ് മഷീൻ വേടിച്ചിട്ടുണ്ടായിരുന്നു ഫുള്ളി ഓട്ടോമാറ്റിക് ആണ് വേടിച്ചത് അത് ഇവിടെ എത്തിയപ്പോൾ അത്ര കണ്ടീഷനായിട്ട് എനിക്ക് തോന്നിയില്ല വർക്കിങ്ങും അതേപോലെ തുണി അലക്കുന്നതാണെങ്കിലും വൃത്തിയില്ലാത്ത പോലെ ഫീൽ ചെയ്തു വൃത്തി ആവണില്ല തുണിയൊന്നും അതേപോലെ അത് ഓട്ടോമാറ്റിക്കാണ് പറഞ്ഞാലും നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം അതേപോലെ സൗണ്ട് വന്നു കൊണ്ടിരിക്കുക ഇടക്ക് കറങ്ങി താനെ നിൽക്കുക അതേപോലെ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് വരാണ്ടിരിക്കുക അങ്ങനെയുള്ള കുറേ ഇഷ്യു ഒക്കെ കണ്ടു എന്തുകൊണ്ടും എനിക്കത് വർത്ത് ആയിട്ട് തോന്നിയില്ല